ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ മുഹമ്മദ് യസീം ഞാൻ ഇന്നലെ ഒരാഴ്ച മുമ്പിട്ട് ഒരു ഫുട്ബോള് ആമസോണിൽ നിന്ന് ബു ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ടൈമിത്തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫുട്ബോളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വളരെ നല്ല നിലവാരവും ക്വാളിറ്റിയും കീപ് ചെയ്ത് കൊണ്ട് നല്ലൊരു ഫുട്ബോളായിരുന്നു നല്ലൊരു കളറും അതിൻ്റെ സ്റ്റിച്ചും ബ്ലാഡറും എല്ലാം വളരെ നല്ല രസകരമായിരുന്നു നല്ല ക്വാളിറ്റിയും എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അവരുടെ കൃത്യനിഷ്ഠത കറക്റ്റായിരുന്നു ടൈമിന് നല്ല വാല്യൂ കല്പിക്കുന്നതാണ് ആമസോൺ പിന്നാ എനിക്ക് ഇതിൽ സമ്പൂർണ സംതൃപ്തിയുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക നല്ലൊരു ഫുട്ബോളാണ്